എനിക്ക് കന്നുകാലികളൊന്നും തന്നെ ഇല്ല പക്ഷേ എനിക്കൊരു പട്ടി ഉണ്ട് അവനെ ഞാൻ നല്ലയൊരു അവനെ ജനിച്ചയുടനെ തന്നെ ഞാൻ അഡോപ്റ്റ് ചെയ്തതാണ് അവന് ജനിച്ച് ആദ്യ സമയങ്ങളിൽ തന്നെ അവന് വേണ്ടുന്നത് ചെറിയ കുപ്പി പാലിലായിരുന്നു ഞാൻ കുപ്പിപാലായിട്ടാണ് കൊടുത്തിരുന്നത് അത് അവന് കൊടുത്തിരുന്നു പിന്നെ അതുപോലെ ഇമ്മ്യൂണിറ്റി മെഡിസിനുകളും അവന് അവന്റെ ആരോഗ്യ പരിപാലനത്തിനാവശ്യമായ ടോണിക്ക് അത് വാങ്ങി കൊടുത്തിട്ടുണ്ട് പിന്നെ അവൻ്റെ ഇൻജെക്ഷൻ പേ വിഷബാധക്ക് എതിരെയുള്ളതും മറ്റ് ഇഞ്ചക്ഷനുകളുണ്ടായിരുന്നു നമ്മൾ ഹോസ്പിറ്റൽല് മൃഗാശുപത്രിയിൽ കൊണ്ട് പോവുകയും അവനാവശ്യമായ ഡോസുകൾ കൊടുക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് അവന് കൊച്ചിലെ ഒരു പാർവോ എന്ന് പറയുന്ന അസുഖം വന്നപ്പോൾ എനിക്കത് അവനെ കുറെ നന്നായിട്ട് പരിപാലിക്കേണ്ടി വന്നു അവനു വേണ്ടുന്ന ശുശ്രുഷകൾ മാക്സിമം കൊടുത്ത് അത് ശരിക്കും പട്ടികളിൽ വന്നെന്നാൽ അത് ചത്തുപോകുന്ന അവസ്ഥയാണ് ഇവൻ നെ ഞാൻ ആശുപത്രിയിൽ കൊണ്ട് പോകുന്ന സമയത്ത് കൂടെ കൊണ്ടുവന്ന പട്ടികൾ പലതും അത് വന്ന് ആ സമയത്ത് മരിച്ച് പക്ഷേ ഞാൻ അവനെ ആ രീതിയിൽ വേണ്ട രീതിയിൽ കൈയ് കെയർ ചെയ്തപ്പോഴത്തേക്കും അതുപോലെ ഡോക്റ്റേഴ്സും അവന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ടു ഒക്കെ തന്നതു കൊണ്ട് അവനൊരു കുഴപ്പവും കൂടാതെ ഇന്ന് മൂന്ന് വയസായി അവനെന്റെ കൂടത്തന്നെ ജീവിക്കുന്നു അതുവേ ഒരു നമ്മൾ വളർത്തുന്ന മൃഗമെന്ന് പറയുന്നത് മനുഷ്യരേക്കാൾ അധികം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ജീവിയാണ് ഞാൻ എന്തു ചെയ്യുമ്പോഴും എന്റെ ചുവട്ടിൽ കാണും അവൻ നമ്മൾ സ്നേഹം കൊടുത്താൽ അതിന്റെ നൂറ് ഇരട്ടി തിരിച്ചുതരുന്ന ഒരു ജെയ് വർഗമാണ് ജന്തുക്കളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവന് വർഷം എല്ലാ മാസങ്ങളിലും വിര മരുന്ന് കൊടുക്കണം അത് കൃത്യമായിട്ട് കൊടുക്കുന്നു അവന്റെ സമയാസമയങ്ങളിലവന് ഇത് ഇൻജെക്ഷൻ കൊടുക്കണം അത് ഞാൻ ഹോ ഹോസ്പിറ്റലി കൊണ്ടുപോയി കൊടുക്കുകയും എന്നെ സംബന്ധിച്ചൊരു നല്ല രീതിയിലെനിക്ക് പരിപാലിക്കാൻ പറ്റിയൊരു കു ഇത് തന്നെയാണ് ജീവി തന്നെയാണ് എന്റെ ബ്രൂണോ എൻ്റെ പട്ടി കുഞ്ഞ് അവൻ നല്ല രീതിയിൽത്തന്നെ എന്നോടും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഏത് ജീവികളും നമ്മൾ അവരോടെങ്ങനെ സ്നേഹിക്കുന്നു അത് അതുപോലെ തന്നെ നമ്മൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് സമയാസമയങ്ങളിൽ അവരെ കുളിപ്പിക്കുക ഭക്ഷണം കൊടുക്കുക നമ്മൾ കൊടുക്കുന്ന സമയാവുമ്പോഴ്ത്തേക്കും അവരെ വിളിച്ചെന്നാൽ അവരുടനെ തന്നെ വരികയും ഒക്കെ ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് ഈ പട്ടിയെ പരിപാലിച്ച് മാത്രമേ അറിവുള്ളു